ഹലോ ആ ഉണ്ട് ഓക്കെ

ആ അതെന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് വർക്കിൻറ്റെ പ്രെഷറാണോ അതോ അല്ലെങ്കില് വേറെയെന്തെങ്കിലും പിന്നെ ഫാമിലി ഇഷ്യൂസ് അങ്ങനെയെന്തെങ്കിലുമുണ്ടോ വർക്കിൻറ്റെ പ്രഷര് തന്നെയാണല്ലേ വേറെയെന്തെങ്കിലും മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഓ ഓ ആ എപ്പോഴുമുണ്ടോ വന്നു അല്ലേ ആ ആ നിങ്ങള് വേറെ കൺസൾട്ട് ചെയ്തിരുന്നുവോ ആരെയെങ്കിലും

ഓക്കേ ഓക്കെ വർക്ക് എങ്ങനെയാണ് സമയവും കാര്യങ്ങളുമൊക്കെ ഫുൾ ടൈമാണോ

ഇങ്ങനത്തെ ഇഷ്യൂസാണല്ലേ നിങ്ങള് കൗൺസിലിങ് സെഷൻസൊക്കെ ചെയ്തിരുന്നുവോ അറ്റൻഡ് ചെയ്തിരുന്നുവോ ഇല്ല അല്ലേ നമ്മള് കൗൺസിലിങ്ങും തെറാപ്പിയുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോള് നിങ്ങള് ആ അതൊരു ടൂ ഡേ മുന്നേ ബുക്ക് ചെയ്താല് മതി ആ അത് നമ്മുടെ ഈ നമ്പറില് കോണ്ടാക്റ്റ് ചെയ്താല് കറക്റ്റ് കിട്ടും നിങ്ങള്ക്ക്

പിന്നെ നിങ്ങളുടെ ടൈം ലൊക്കേഷന് നമ്മുടെ ഫോൺ സെഷൻസുണ്ട് അതുപോലെ ഓഫീസുമുണ്ട് വയനാട്ടിലാണ് വരുന്നത് അപ്പോള് നിങ്ങളുടെ ടൈമും കാര്യങ്ങളും അറിയിച്ചാല് അതിനനുസരിച്ച് ഉം ആളുണ്ടാകും ആ എല്ലാ ദിവസവുമുണ്ടാകും ഉണ്ടാകും ഉണ്ടാകും ഓക്കെ ഇത് രണ്ടുമുണ്ട് അത് നിങ്ങളുടെ പ്രോബ്ലത്തിന് അനുസരിച്ചാണ് മ് ഓക്കെ അപ്പോള് ആ മതി മതി ഈ നമ്പറില് കോണ്ടാക്റ്റ് ചെയ്തുകൊള്ളൂ ഓക്കെ